ഹലോ

ചക്കയിപ്പം അവൈലബിളല്ല രണ്ട് ദിവസം കഴിഞ്ഞേ കിട്ടൂളൂ ഏത് ഏത് പഴമാണ് ആവശ്യമുള്ളത് ഏത്തൻ ആ ഏത്തൻ ഇപ്പോൾ നിൽക്കുന്നത് അൽപ്പം മോശമാണ് പക്ഷേ നാളത്തേക്കാണെങ്കിൽ എടുക്കാൻ കാണും

മോറീസങ്ങനെ നമ്മളിപ്പോൾ എടുക്കാറില്ല കാരണമത് ചെറിയ കേടായി വരണോണ്ട് ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് കേടായി പോകുന്ന കാരണം മോറീസ് അധികം എടുക്കാറില്ല ഇപ്പം പിന്നെ എമെർജെൻസി ആണെന്നുണ്ടെങ്കിൽ ഞാനൊരു വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ തരാനായിട്ട് നോക്കാം ഏത്തൻ മതി ആ ഹാ ഏത്തൻ കിലോ എഴുപത്തഞ്ച് രൂപ എത്ര കിലോ വേണം മൂന്ന് കിലോ ഏത്തൻ ചക്ക എത്രണ്ണം വേണം മതി ഒരെണ്ണം മതി ഞാൻ നെല്ലിക്കയോ ഓ ഓ നെല്ലിക്ക എത്ര കിലോ വേണം നാല് കിലോ വേണം പക്ഷേ ഒരു കിലോ നെല്ലിക്കക്ക് അൻപത് രൂപ ഹോം ഡെലിവറി ബോയ് സുഖമില്ലാതെ കിടക്കാണ് ഈ ആഴ്ച അവസാനമാണെന്നുണ്ടെങ്കിൽ ആ പയ്യൻ വരും വെള്ളിയാഴ്ച്ച വൈകീട്ട് വരും ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ആണെങ്കിൽ കൊണ്ട് തരാം അതെ അതിന് വിലയും കൂടുതലാണ് സാധനങ്ങളെല്ലാം വില കൂടുതലാണ് മേടം ഇപ്പോൾ മഴയൊക്കെ മഴയും ചൂടും കാരണോക്കേയ് ആ അങ്ങനെ ഏകദേശം ഒരായിരം രൂപ ഓ ഒരായിരം രൂപയാവും മതിയോ ആ എങ്കിൽ പിന്നെ എന്ന് കൊണ്ടുവരണം വെള്ളി ശനിയാഴ്ച കൊണ്ട് വരണോ ഞായറാഴ്ച കൊണ്ട് വരണോ ശനിയാഴ്ച്ചേടന്ന് ആ ആ ശരിയെങ്കിൽ ഞായറാഴ്ച കൊടുത്തു വിടാം ആ ഓ വാട്സാപ്പ് ഈ നമ്പര് വാട്സാപ്പിലുള്ള തന്നെ വാട്സാപ്പിൽ ഇട്ടിരുന്നാൽ മതി ആ ആ ഓക്കെ താങ്ക് യൂ ആ ശരി